എലക്ട്രോണിക് പുസ്തകങ്ങളുവായിട്ട് എനിക്ക് ഭയങ്കര ഒരു മോശ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാമതായിട്ട് ആ സാധനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണാകെ വേദനിക്കും കണ്ണാകെ വരളുന്ന പോലെ പിന്നേ അത് അധികം നേരം നമുക്ക് വായിച്ചിരിക്കാൻ പറ്റില്ല അപ്പോളേക്കും നമുക്ക് മടുക്കും രണ്ടാമതെന്ന് പറയുന്നത് എനിക്ക് എപ്പഴും ഇഷ്ടം സാദാ പുസ്തകങ്ങളോടാണ് അതാണെങ്കിൽ ആ പുതിയ പുസ്തകത്തിൻ്റെ മണവും മറിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവവും ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയാണ് അതീ എലക്ട്രോണിക് പുസ്തകങ്ങൾ കൊണ്ടൊന്നും കിട്ടില്ല